ഒന്നാമത്ത കാര്യം എനിക്ക് സ്വന്തമായിട്ട് ബൈക്ക് ഇല്ല പിന്നെ ഞാൻ വണ്ടി ഓടിക്കും എനിക്ക് ലൈസൻസ് ഉണ്ട് പഷേ ഞാൻ ബൈക്ക് അല്ല ഓടിക്കുന്നത് ആക്റ്റീവ പോലത്തെ ടു വീലർ വണ്ടികളാണ് ഓടിക്കുന്നത് ഞാൻ ഇതുവരെ ബൈക്ക് ഗിയർ ഉള്ള വണ്ടികൾ ഓടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബൈക്ക് എൻ്റെ പപ്പയ്ക്കാണുള്ളത് പപ്പ പരിപാലിക്കുന്നതെ ഞാൻ കണ്ടിട്ടുള്ളു അത് വച്ച് വേണമെങ്കിൽ പറയാം ബൈക്ക് പരിപാലിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കറക്ട് ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യണം അതിൻ്റെ പണിയൊക്കെ വരുമ്പോൾ കറക്ടായിട്ട് അതിനെ വർക്ക് ഷോപ്പിലൊക്കെ കൊണ്ടുപോയി പണി ചെയ്യണം അതുപോലെ തന്നെ പുക ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്ക മീൻസ് പുതിയതായിട്ട് ചെക്ക് ചെയ്യുകയും പുന പുനഃപരിശോധന നടത്തുകയും ഒക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ ആണ് വണ്ടി മെയിൻൻ്റൈൻ ചെയ്യാനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുപോലെതന്നെ ഇതിൻ്റെ ബാറ്ററി ആയാലും വണ്ടിക്ക് തന്നെ ബാറ്ററി ഉണ്ട് ഇതിന് ഓടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതൊക്കെ കറക്ട് ആയിട്ടുള്ള രീതിയിൽ നിയന്ത്രിക്കുമ്പോൾ അതിൻ്റെ നല്ലതായിട്ട് നോക്കുകയാണെങ്കിൽ അത് വണ്ടി നന്നായിട്ട് പരിപാലിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബൈക്കിങ്ങ് ചില സമങ്ങളിൽ മടിപ്പിക്കും എന്ന് തോന്നുന്നുണ്ടോന്ന് ചോയ്ച്ചാ തീർച്ചയായിട്ടും നമ്മള് ഇപ്പൊ ദൂരെ യാത്ര ഒക്കെ പോകുമ്പൊഴ് കൊറേ നേരം ബൈക്കില് ഇരിക്കുമ്പൊ നമുക്ക് നന്നായിട്ട് മടുക്കും അതുപോലെ തന്നെ നമക്കിപ്പോൾ പുറകിൽ ഇരുന്ന് പോവുന്ന ആൾക്കാർക്ക് എത്രത്തോളം മടുക്കുന്നോ അപ്പോൾ ഓടിക്കുന്ന ആളിനും അത്രത്തോളം തന്നെ ബൈക്ക് ഓടിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ട് ആണ് അത് പുറകിൽ ഇരിക്കണം അതുപോലെതന്നെ ഒരു സീറ്റിൽ തന്നെ കുറേ സമയം ഇങ്ങനെ ഇരിക്കണം എന്ന രീതിയിൽ തീർച്ചയായിട്ടും ബൈക്ക് യാത്ര മടുപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ലോങ്ങ് യാത്രയൊക്കെ പോകുമ്പോൾ അല്ലേ ദൂരയാത്രയൊക്കെ പോവുമ്പോൾ ബൈക്കിനെക്കാളും നമുക്ക് ഇത്തിരി കിടന്നൊക്കെ പോകാനുള്ള ട്രെയിൻ പോലത്തെ യാത്രയായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു അതുപോലെത്തന്നെ ദിർഘദൂര യാത്രകളിൽ എങ്ങനെയാണ് ജാഗ്രതയും പ്രചോദനവും നിലനിർത്തുക എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ബൈക്കുകൊണ്ട് ദൂരയാത്ര അങ്ങനെ പോവുകയാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നിർത്തി കുറച്ച് നേരം ഇനി ബൈക്കിൽനിന്ന് ഇറങ്ങിയൊക്കെ നിന്ന് കുറച്ച് ഒന്ന് ശാന്തമായി റിലാക്സ് ഒക്കെ ആയി കുറച്ച്നേരം പ്രകൃതി ഭംഗി ഒക്കെ ആസ്വദിച്ച് വേറെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ബൈക്കിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കുക കുറച്ച് യാത്ര ചെയ്ത് ബൈക്ക് അവിടെ നിർത്തിയിട്ട് നമ്മളൊന്ന് ഇറങ്ങി നടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഒരേ രീതിയിൽ ഇങ്ങനെ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാതെ ബൈക്കിൽ നിന്ന് ഇറങ്ങാനും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇത്തിരി ആശ്വാസത്തോടെ നല്ല രീതിയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ജാഗ്രതയും ബൈക്ക് ഇങ്ങനെ ദീർഘദൂര യാത്രകളിൽ നല്ലരീതിയിൽ ബൈക്കിൽ സഞ്ചരിക്കാനും പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്